ഞങ്ങളുടെ കൃഷിയില് സാങ്കേതികവിദ്യ എന്ത് പങ്ക് വഹിക്കുന്നു എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അത് ഉപകാരവുമുണ്ട് എന്താ പറയുക ഉപദ്രവവും ഉണ്ട് അതായത് കുറേ ഡെയിലി ദിവസ വേതനത്തിനായി ഞാറ് പറിക്കുന്നവരെ ഞാറ് എടുക്കുന്ന എന്താ പറയുക നെല്ല് പറിക്കുന്നവരേയും ഞാറിടുന്നവരൊക്കെ അത് ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ കൃഷിയിൽ എന്നെ സംബന്ധിച്ച് പണ്ടത്തെ പോലെ തന്നെ ഒരോ വ്യക്തികൾ വന്ന് അതിൽ വിത്ത് വിതക്കുകയല്ല ചെയ്യുന്നത് ഇപ്പോൾ മെഷീൻ ആണ് എല്ലാത്തിലും കറ്റ മെതിക്കാനും നെല്ല് പുഴുങ്ങാനും ഒക്കേനും മെഷീൻ ആണ് പക്ഷെ അതൊക്കെ സഹായകരമാണ് സാങ്കേതികവിദ്യ എങ്കിൽകൂടി സ്വമേധയുള്ള ജോലി കുറക്കലിനെ കുറച്ച് അത് നല്ലതാണ് പക്ഷെ അതുപോലെ തന്നെ ഇതിനെ ആശ്രയിച്ച് അതായത് ഈ ജോലി തന്നെ ചെയ്ത ചെറുപ്പം മുതലേ ഇതിനെ തന്നെ ആശ്രയിച്ച് നിൽക്കുന്ന വ്യക്തികൾക്ക് ഇതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം അവരുടെ ജോലി പോയി കാരണം ഇതെല്ലാം ചെയ്തത് മെഷീൻ ആണ് അപ്പോൾ അങ്ങനെ അത് അറിയാവുന്ന ആളുകൾ ജോലിക്ക് വിളിക്കുന്നില്ല കാരണം മെഷീൻ ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് ജോലിയില്ല അങ്ങനെ നോക്കുമ്പോൾ അത് ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ഇവരെ നന്നായിട്ട് അത് ബാധിച്ചിട്ടുണ്ട് പക്ഷെ ഒരു കൃഷി നടത്തുന്ന വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിനേക്കാൾ എളുപ്പം ഈ മെഷീനാണെങ്കിൽ അതനുസരിച്ച് ജോലി ചെയ്യും പിന്നെ ആർക്കും ബുദ്ധിമുട്ടിക്കേണ്ട പിന്നെ ഇപ്പോൾ സ്വയം ചെയ്യാം അതായത് ഇപ്പോൾ ഒരു എനിക്ക് ജോലിക്കാരെ വെച്ച് ജോലി ചെയ്യുന്നതിനേക്കാൾ ഭേദം ഈ മെഷീൻ വേടിച്ചാൽ എനിക്ക് തന്നെ ചെയ്യാം അപ്പോൾ ആ എനിക്കുള്ള വരുമാനം എനിക്ക് കിട്ടും പക്ഷെ ഇതിൻ്റെയുള്ളിൽ കിടന്ന് കഷ്ടപ്പെടുന്നതും ദുഃഖിക്കുന്നതും ഈ ജോലി അറിയാവുന്നത് ആദ്യം ഇത് മുതലേ ഈ ജോലിക്ക് തന്നെ പോരുന്ന വ്യക്തികൾക്ക് വേറെ ജോലിക്ക് പോവാൻ അറിയില്ല അവരാണ് ദിവസ വേതനത്തിന് ഇതിന് പോയിരുന്നത് കറ്റ മെതിക്കാനും ഞാറ് പറക്കാനും എല്ലാത്തിനും ഇത് ഇവർ തന്നെയാണ് പോയിരുന്നത് പക്ഷെ അവർക്ക് അതുകൊണ്ട് ജോലിയില്ല ഇപ്പം എല്ലാം മെഷീൻ ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ട് അത് കൃഷിയെ സംബന്ധിച്ച് കർഷകരെ വളരെയധികം ബാധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ നൂ ടെക്നോളജി അതായത് ഈ സാങ്കേതിക വന്നതിൽപ്പിന്നെ അവരാരും വിളിക്കുന്നില്ല അതുപോലെത്തന്നെ നമ്മളുണ്ടാക്കുന്ന ഫുഡിനും ടേസ്റ്റ് വ്യത്യാസം വരും മെഷീൻ ഉപയോഗിക്കുന്നതും നമ്മൾ സ്വമേധയാ ചെയ്യുന്നതും നല്ല വ്യത്യാസമുണ്ട് അതിലുണ്ടാക്കുന്ന ഭക്ഷണവും മറ്റുള്ളവർ ചെയ്തുണ്ടാക്കുന്ന ഭക്ഷണവും നല്ല വ്യത്യാസമുണ്ട് അത് നെല്ലിൻ്റെ കാര്യം ആയിക്കോട്ടെ ഇപ്പോൾ മെഷീൻ വന്നപ്പോൾ നമ്മുടെ കേരളത്തിലെ അന്നന്നുള്ള നെല്ലും കുറഞ്ഞ് തൊടങ്ങി അതിപ്പോൾ മെഷീൻ തന്നെ എല്ലാ എല്ലായിടത്തും അതായത് ഇപ്പോൾ അന്യസംസ്ഥാനത്തുനിന്ന് നമുക്ക് വരുന്നത് മെഷീൻ വഴിയാണ് അതായത് അവരൊന്നും ജോലിക്കാരെ വെച്ചിട്ടല്ല ചെയ്യുന്നത് കാരണം എല്ലാവരും ചിലവ് കുറയ്ക്കുന്ന ഒരു രീതിയാണ് ജോലിക്കാരില്ലാത്തതുകൊണ്ട് ചെയ്യുന്നത് അപ്പോൾ ജോലിക്കാരില്ലാത്ത കുറ്റം അല്ല അവരെ വിളിക്കുന്നില്ല കാരണം എല്ലാറ്റിനും കുറവ് മെഷീൻ ചെയ്യും അപ്പോൾ അതുകൊണ്ട് രണ്ട് ഭാഗവും ഇതിന് ബുദ്ധിമുട്ടും ഉണ്ട് നല്ല വശം ഉണ്ട് നമ്മൾ സ്വന്തമായി കൃഷി ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതാണ് അല്ല ജോലിയായിട്ട് ജോലിക്കായി നമ്മൾ നീങ്ങുന്നൊരു കർഷകനാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് കാരണം നമ്മളെ നാളെ തൊട്ട് ആരും ജോലിക്ക് വിളിക്കുന്നില്ല അതാണ്